എനിക്ക് ഈ അടുത്തായിട്ട് തോന്നിയൊരു വാർത്ത എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് ബോട്ടപകടം നടന്ന സംഭവിച്ച ഈ പതിനേഴാം മെയ് മാസത്തിൽ ഒരു ഇരുപത്തിരണ്ടോളം പേര് പിഞ്ചുകുഞ്ഞുങ്ങളടക്കം മരണപ്പെട്ടൊരു സംഭവം നടന്നിട്ടുണ്ടായി അത് സത്യം പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ വീഴ്ച്ചകൊണ്ട് ആണത് സംഭവിച്ചത് ഒരപകടം സംഭവിക്കുമ്പോൾ മാത്രമേ സർക്കാരും അതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ സുരക്ഷയെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകുകയുള്ളു ഒരുപക്ഷെ നേരത്തേ ഈ അപകടം വരാതിരിക്കാൻ വേണ്ടി പരമാവധി അവർക്ക് ശ്രദ്ധിക്കാമായിരുന്നു ഒരു ലൈഫ് ജാക്കറ്റ് പോലുമില്ലാതെയാണ് അവർ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടായത് ആൾക്കാരെ കുത്തിനിറച്ചിട്ട് ആ വാർത്ത എന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു കാര്യമാണ് കാരണം പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ഒരു സന്തോഷവേള ആസ്വദിക്കാൻ പോയൊരു പിഞ്ചുകുഞ്ഞുങ്ങളടക്കം അതിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വാർത്തയാണ് എനിക്കുള്ളത്